ഹലോ ആ ഇത് കെ എൽ പതിനൊന്ന് എ ആറ് അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ക്യാബല്ലേ ആ ഓക്കെ ആ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നേ നമ്മള് എറണാകുളം വരെ ഒരു ട്രിപ്പ് പോയിരുന്നു ആ ഓഫീസ് മീറ്റിങ്ങിന് അന്ന് പോയത് ആ അത് തന്നെ അത് തന്നെ ആ എൻ്റെ ഒരു ബാഗ് ബീച്ച് സൈഡിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നേ ആ അപ്പോൾ അതിനകത്ത് എൻ്റെ ലൈസൻസും കാര്യങ്ങളും മസ്റ്റായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു ആ ഓക്കെ മസ്റ്റായിട്ടുള്ള കുറച്ച് സെർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് ആ ഓക്കെ ആ അപ്പോൾ അത് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് പോകണമായിരുന്നു അപ്പോൾ ക്യാബ് ഫ്രീ ആയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണെ ആ ബാഗ് അവിടെ കിട്ടിയിട്ടുണ്ട് അവരൊരു മൂന്ന് മണിയാകുമ്പത്തേക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യും അപ്പം അതിനുള്ളിൽ എനിക്കവിടെ ചെല്ലണം ആ ഫ്രീ ആണോ ആ ഓക്കെ ഓക്കെ രണ്ട് മണിയോടെ ഫ്രീ ആകുവല്ലേ ഓക്കെ എന്നാൽ രണ്ട് മണിയാകുമ്പത്തേക്ക് ഒന്ന് വീട് ഇവിടെ വീടറിയില്ലേ അന്ന് പിക്ക് ചെയ്ത അതേ സ്പോട്ട് തന്നെ ആ വീടിൻ്റെ ഇവിടെ വരെ ഒന്നു വരുവാണെങ്കിൽ അത്രയും നല്ലത് ആ ഓക്കെ ഒന്നു വന്നിട്ട് എന്നെ ഒന്ന് പിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് അത് വഴി കളക്റ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള സെർട്ടിഫിക്കറ്റ്സും കാര്യംസ് കാര്യങ്ങളക്കെയാണ് അതിനകത്തുള്ളത് ഓക്കെ എന്നാൽ രണ്ട് മണിയാകുമ്പോത്തേക്ക് ഒന്നുവന്നാൽ നമുക്കതൊന്ന് പോയി കളക്റ്റ് ചെയ്യണം